ഹലോ ഞാൻ കുറച്ച് മുൻപേ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് ബിരിയാണി നാല് ഫ്രൈഡ് റൈസ് പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അതായത് നമുക്ക് കുറച്ച് പാനീയങ്ങൾ അതായത് കൊക്കോകോള അല്ലെങ്കിൽ സ്പ്രൈറ്റ് അങ്ങനത്തെ സാധനങ്ങൾ കൂടി ആഡ് ചെയ്യണം ആ അതെ അതെ അതെ അപ്പോൾ അതും ഒന്ന് ആഡ് ചെയ്തിട്ട് ടോട്ടൽ ബില്ല് എത്ര എന്ന് ഒന്ന് ഡെലിവറി ബോയിൻറ്റടുത്ത് പറയും വേണം നേരത്തെ ഞാനൊരു സ്ഥലം പറഞ്ഞില്ലായിരുന്നോ ആ അതെ അതെ ചെറ്റപ്പാലത്തു നിന്ന് ഇടത്തേക്ക് അപ്പം അവിടേക്ക് കൊടുക്കണ്ട കാരണം അവിടെ ആരും ഇല്ല എൻ്റെ അതായത് ഞാനിപ്പോൾ അവിടെയില്ല ആ അതെ അതെ അതെ ആഹ് അപ്പോൾ അവിടെ നിന്ന് മാറ്റിട്ട് ഞാൻ പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഇങ്ങള് ഒണ്ടേങ്ങാടി ഇല്ലേ ആഹ് അതായത് നമ്മുടെ സാന്ത മിന്നുമണീൻ്റെ ആ വീടില്ലേ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് കൊണ്ടു കൊടുത്താൽ മതി ഓക്കേ ഓക്കേ ഞാൻ ക്യാഷൊക്കെ ഞാനവിടെ എത്തിച്ചേക്കാം ഞാനിപ്പോൾ അവിടെ എത്തില്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരികയുള്ളൂ അപ്പോൾ ഭക്ഷണം കഴിക്കുന്നവരൊക്കെ അങ്ങോട്ടേക്ക് പോയി നിങ്ങളെ കുറേ നേരം വെയിറ്റ് ചെയ്തായിരുന്നു അപ്പോൾ നിങ്ങളിതുവരെ എത്താത്തതു കൊണ്ട് അവരവിടേക്ക് പോയി അപ്പോൾ അവിടേക്ക് ഒന്ന് എത്തിക്കുവാണേ നന്നായിരുന്നു ഓക്കെ ഞാനിപ്പോൾ പറഞ്ഞതും കൂടി കൂടി ചേർത്തിട്ട് ഒന്ന് എത്തിക്കു കേട്ടോ ഓക്കെ